എനിക്കങ്ങനെ ചിത്രം വരയ്ക്കാനും എനിക്കങ്ങനെ അങ്ങനത്തെ കഴിവില്ല പക്ഷേ ചിത്രരചന ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ചിത്ര കലാകാരന്മാർ അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ അതെല്ലാം കാണാനും ആസ്വദിക്കാനും എനിക്ക് ഭയങ്കര താത്പര്യമാണ് നമ്മൾ കഴിവില്ലെങ്കിലും അതിനെ ആസ്വദിക്കാൻ താത്പര്യമുണ്ട് അങ്ങനെയെൻ്റെ ചിത്രരചനയെ സ്വാധീനിച്ച കുറച്ച് കലാകാരന്മാർ നമ്മുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്നു പറയുന്നത് രാജാരവി വർമ്മ തന്നെയാണ് ഇവിടെ ഏതൊരു മലയാളിക്കും പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് രാജ രവിവർമ്മ ചിത്രങ്ങൾ തന്നെയാണ് പിന്നെ പിന്നെ ഒരുപാട് പേരുണ്ട് അതിൽ മറ്റൊരു കലാകാരനാണ് രാമവർമ്മരാജാ എന്നു പറയുന്നത് പിന്നെ അതേ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ചിത്ര രചന കലാകാരന്മാരാണ് ലിയനാഡോ ഡാവിഞ്ചി റാഫേൽ അങ്ങനെയുള്ളവരൊക്കെ അപ്പോൾ ഇവരൊക്കെയാണ് എനിക്ക് അറിയുന്ന കലാകാരന്മാരെന്നു പറയുന്നത് പിന്നെ ചിത്രരചന ചില പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളെന്നു പറയുന്നത് എനിക്ക് അങ്ങനെ എല്ലാതും കാര്യമായിട്ട് അറിയില്ല പക്ഷെ എന്നാലും കുറച്ചൊക്കെ പണ്ട് ബുക്സ് വായിക്കുന്നതിനിടയിൽ കണ്ടിട്ടുള്ള കുറച്ച് പേരുകൾ തന്നെയാണ് അതിൽ ഒന്നാണ് ആപ്പിൾ കൊട്ട അത് പോൾ സേസൺ എന്നു പറയുന്നൊരു കലാകാരൻ വരച്ച ആപ്പിൾ കൊട്ടയെന്നു പറയുന്ന ചിത്രം പിന്നെ അതേ പോലെ തന്നെ അദ്ദേഹം തന്നെ വരച്ച അന്നസി കായൽ പിന്നെ മണ്ണതിയിലെ പാലം ഇതൊക്കെ നമുക്ക് കാണാൻ വളരെയധികം താല്പര്യം തോന്നിക്കുന്ന ചിത്രങ്ങളാണ് പിന്നെ പിന്നെ നമുക്ക് കൂടുതലും തോന്നുന്നു രാജാരവി വർമ്മയുടെ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാഞ്ഞു പോകില്ല പിന്നെ എനിക്ക് കൂടുതൽ കാണാൻ താല്പര്യമുള്ള ചിത്രങ്ങൾ കൂടുതലും നമ്മുടെ നാടൻ ചിത്രങ്ങൾ തന്നെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കലാരൂപങ്ങൾ അതേ പോലെ തന്നെ നമ്മുടെ നദി കായൽ അങ്ങനെയുള്ള നമ്മുടെ നാടൻ കലാരൂപങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾ അവരുടെ ചിത്രങ്ങൾ അവരുടെ കളിക്കുന്ന ചിത്രങ്ങൾ കാണാൻ ഒരുപാട് ഇഷ്ടമാണ്